ഇപ്പോൾ നമ്മളുടെ ഗ്രാമീണ മേഖലയെന്നു പറയുമ്പോൾ ശരിക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ കൃഷിയും കാര്യങ്ങളുമൊക്കെ നല്ലൊരു രീതിയിൽ വ്യവസായം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വരുമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നത് എന്താണെന്നു വച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള ഇറക്കുമതിയുണ്ട് അതായത് വൻകിട വ്യവസായങ്ങളെ അധികം നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വില കമ്മി അതായത് നമ്മുടെ ഗ്രാമങ്ങളിൽ നല്ല ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കണ ആയതുകൊണ്ട് വില കൂടുതലായിരിക്കും അതിനെ മറിച്ച് പുറത്തു നിന്നുള്ള ആൾക്കാർ രാസവളവും കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ യീൽഡിങ്ങും കൂടുതലായിരിക്കും അതുപോലെത്തന്നെ അവിടെ വില കമ്മിയാവുന്നത് അതായത് കുറച്ചു സാധനം ഇട്ടു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ സാധനം ഉണ്ടാകും അത് രാസവളം ഉപയോഗിക്കുമ്പോഴുള്ള ഒരിതാണത് അപ്പോൾ അവർക്ക് സാധനം വില കമ്മിയിൽ തരാനും പറ്റും അപ്പോൾ അതു നമ്മുടെ മാർക്കറ്റിൽ ആ സംഭവം നമ്മുടെ മാർക്കറ്റിലെത്തിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്നു വച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനത്തിന് വില കൂടുതലാണ് സംഭവം നല്ല പച്ചക്കറി അല്ലെങ്കിൽ രസവും രാസവളവും മറ്റേ വിഷാംശമൊന്നും ഇല്ലാത്ത രീതീയിലുള്ള പച്ചക്കറിയാണെന്നു പറഞ്ഞാലും ഇപ്പോഴത്തെ സാധാരണക്കാരന് അതിൻ്റെ സമ്പത്ഘടന വച്ചിട്ട് ആ പച്ചക്കറീസ് വില കുറഞ്ഞ പച്ചക്കറി മേടിക്കാൻ കൂടുതലാൾക്കാരും ശ്രമിക്കും അതുകൊണ്ടുതന്നെ നമ്മുടെ നല്ല ശുദ്ധമായ പച്ചക്കറി അവർക്ക് വിറ്റു പോകില്ല അപ്പോൾ അവർ ആ പച്ചക്കറി മേടിച്ച് അതായത് നമ്മുടെ ഗ്രാമങ്ങളി നിന്ന് വന്നിട്ട് വലിയ ആൾക്കാർ ഒരു വൻകിട ആൾക്കാർ വന്നിട്ട് അവർ വില കുറഞ്ഞ രീതിയിൽ നമ്മളുടെ കയ്യിൽ നിന്ന് നല്ല ശുദ്ധമായ പച്ചക്കറി മേടിച്ചിട്ട് പുറം പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും നല്ല വിലയ്ക്ക് എന്നാലോ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ പച്ചക്കറി നമ്മുക്ക് നഷ്ടമാണ് അതായത് പുറത്തുനിന്ന് വന്ന വിഷാംശമുള്ള പച്ചക്കറി നമ്മുക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ നല്ല പച്ചക്കറി പുറത്തേക്ക് പോവും പക്ഷേ നമ്മളുടെ ഗ്രാമീണർക്കാണെങ്കിൽ എന്നാൽ പൈസ കിട്ടുകയും ഇല്ല അതാണിപ്പോൾ അതിൻ്റെ കർഷക മേഖലയിൽ പ്രശ്നം